പാട്ടു പാടുക എന്നത് മനസ്സിന് ആസ്വാദനം പകരുന്ന ഒരു കാര്യമാണ് പാട്ടു പാടുമ്പോൾ ഒരു വാദ്യോപകരണങ്ങളും ഇല്ലാതെ പാടുന്നതാണ് എനിക്കിഷ്ടം എന്നാലും ഒരു വയലിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ ഒരു കീബോർഡിൻ്റെ ചെറിയൊരു ശ്രുതിയോ ഉണ്ടെങ്കിൽ പാടുമ്പോൾ നല്ല ഇമ്പമുള്ളതായി തോന്നും വല്ലാതെ വാദ്യഘോഷങ്ങളോടു കൂടി പാട്ട് പാടാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല ചെണ്ടയോ മൃദംഗമോ അല്ലെങ്കിൽ തബലയോ അങ്ങനെ വലിയ വലിയ ശബ്ദങ്ങളുള്ള വാദ്യോപകരണങ്ങളുമൊത്ത് പാടുമ്പോൾ നമ്മുടെ ശബ്ദം ചെറുതാവുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടു പാടണമെങ്കിൽ നമ്മുടെ ശബ്ദം നമ്മൾ തന്നെ നല്ലപോലെ കേട്ടിരിക്കണം അങ്ങനെ കേൾക്കണമെങ്കിൽ ഒരു വാദ്യോപകരണങ്ങളും ഇല്ലാതെ ഒരു ശബ്ദവുമില്ലാതെ കേവലം ഒരു ശ്രുതി പെട്ടിയുടെ ഈണം മാത്രം നിൽക്കെ നമ്മൾ പാടണം എന്നാൽ മാത്രമേ ആ ഈണത്തോട് കൂടി ആ ശ്രുതിയോട് കൂടി നമ്മുടെ ശബ്ദം ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ മാന്ത്രിക സ്പർശം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റൂ നമ്മൾ ആസ്വദിച്ചാലേ കേൾക്കുന്നവനും ആ പാട്ട് ആസ്വദിക്കാനാവു അതുകൊണ്ടു തന്നെ നമ്മൾ ആ പാട്ടിനെ സ്നേഹിക്കണമെന്നതാണ് ആദ്യത്തെ കാര്യം നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് അതേ സ്നേഹം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഏത് ഭാഷ ആയാലും സംഗീതം എന്നത് ഒരൊറ്റ ഭാഷ തന്നെയാണ് നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ പുറം ലോകത്തേക്ക് പറയാനും എല്ലാവരിലേക്കും എത്തിക്കാനുമുള്ള ഏറ്റവും നല്ല ഒരു മാർഗ്ഗം തന്നെയാണ് പാട്ടുകൾ എന്നത് പാട്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു ഏതൊരു വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സ് ചഞ്ചലമാണെങ്കിൽ പോലും ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അതെല്ലാം മറക്കും ഒരു പാട്ടിൻ്റെ അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് കേവലം ഒരു മിനിറ്റാണെങ്കിൽ പോലും ആ ഒരു മിനിറ്റ് നമ്മൾ എല്ലാം മറന്ന് ആ പാട്ടിൽ ലയിക്കുന്നു നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മുടെ എല്ലാ വേദനകളും നമ്മുടെ എല്ലാ ടെൻഷനുകളും ആ പാട്ടിൽ അലിഞ്ഞു ചേരുന്നു സങ്കടമുള്ളപ്പോൾ കേൾക്കാൻ സങ്കടമുള്ള പാട്ടുകൾ സ്നേഹം തോന്നുമ്പോൾ കേൾക്കാൻ സ്നേഹം സ്നേഹിക്കുന്ന പാട്ടുകൾ സന്തോഷം വരുമ്പോൾ തോന്നാൻ കേൾക്കാൻ സന്തോഷമുള്ള പാട്ടുകൾ കുഞ്ഞുണ്ടാകുമ്പോൾ താരാട്ട് പാട്ടുകൾ അങ്ങനെ നമ്മുടെ എല്ലാ ഭാവത്തിനും അതിനോട് ഇണങ്ങി നമുക്ക് പാട്ടുകളുണ്ട് വാദ്യോപകരണങ്ങളിൽ പറയുമ്പോഴും അതേ ഓരോരോ ഭാവങ്ങൾക്കും അതിൻ്റേതായ വാദ്യോപകരണങ്ങൾ ഉണ്ട് കുട്ടികൾക്ക് ഒരു താരാട്ടുപാട്ടിൽ നമ്മൾ ഒരുപാട് ശബ്ദമുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കില്ല താരാട്ട് പാടുമ്പോൾ എപ്പോഴും ഒരു ശ്രുതി മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ